പത്രങ്ങളിലെ പേര് പറയാണെങ്കിൽ ഇപ്പം മലയാള മനോരമ ഉണ്ട് ദീപിക ഉണ്ട് ദേശാഭിമാനി ഉണ്ട് അങ്ങനെ കുറച്ച് പത്രങ്ങൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ ഒക്കെ വരുന്നത് പിന്നെ ടൈംസ് ഓഫ് ഇൻഡ്യ ഉണ്ട് ചാനലുകളുടെ പേര് പറയാണേൽ ഇതുപോലെ തന്നെ മനോരമ ന്യൂസ് ചാനലൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലൊണ്ട് ട്വൻറ്റി ഫോറൊണ്ട് പിന്നെ അതുപോലെ റിപ്പോർട്ടർ ന്യൂസ് ചാനലൊണ്ട് അങ്ങനെ പല ന്യൂസ് ചാനലൊണ്ട് നമ്മുടെ വീട്ടിലെ ഏറ്റവും കൂടുതൽ കാണുന്നത് റിപ്പോർട്ടറും ട്വൻറ്റി ഫോറും ആണ് വീട്ടിൽ എപ്പോഴും കൂടുതലായിട്ടും വെക്കാറായിട്ടുള്ളത് റിപ്പോർട്ടറിൻ്റെയും ട്വൻറി ഫോറിൻ്റെക്കെ ന്യൂസ് ഭയങ്കര ഇഷ്ടമാണ് അതായത് ഇപ്പോൾ കൂടുതലും എൻഗേജിങ്ങായിട്ട് അവർ പറയുന്നുണ്ടല്ലോ അതായത് ഇപ്പോൾ എന്തേലും ന്യൂസൊക്കെ വരുവാണേലും വാതോരാതെ സംസാരിച്ച് ഇന്ന് നമ്മളെ കൂടുതൽ ഇങ്ങനെ ആകർഷിച്ചിരുത്തുന്ന രീതിയിലാണ് അവർ എപ്പോഴും ന്യൂസ് പറയാറായിട്ട് ഉള്ളത് ഇപ്പോൾ ഇപ്പോൾ ത ഉദാഹരണത്തിന് ഇപ്പോൾ എന്തേലും വോട്ടിൻ്റെ ദിവസങ്ങളാണേലോ അല്ലെങ്കിൽ എന്തേലും മത്സരങ്ങളുടെ ദിവസങ്ങളൊക്കെ ആണേലോ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഒക്കെ ഇപ്പോൾ ചാനലുകൾ ചാനലുകളുടെ എണ്ണം കൂടിയതു കൊണ്ട് തന്നെ പല ചാനലുകളും തമ്മിൽ മത്സരമാണ് അവർ ആൾക്കാരെ പിടിച്ച് നിർത്താനായിട്ട് കൂടുതൽ നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ ഒറ്റ ചാനല് ഒന്നോ രണ്ടോ ചാനലുകളൊക്കെ ഉള്ളായിരുന്നു പക്ഷേ ഇപ്പം ചാനലുകളുടെ എണ്ണം കൂടിയതു കൊണ്ട് തന്നെ അവർക്ക് അവർ തമ്മിൽ ഒരു മത്സരം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ആൾക്കാരെ പിടിച്ചിരുത്തുന്ന രീതിയിൽ എങ്ങനെ വാർത്തകൾ അവതരിപ്പിക്കാം എന്ന ഒരു ചിന്തയിലേക്ക് ചാനലുകാർ കടന്നെത്തിയിട്ട് ഉണ്ട് അപ്പം കൂടുതലും എന്നാ എന്താ പറയുന്നത് മത്സര ബുദ്ധിയോട് തന്നെയാണ് ചാനലുകാർ അവതരിപ്പിക്കാറായിട്ടുള്ളത് അതിൽ ഇപ്പോം പ്രധാനമായിട്ട് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ ജീ വി ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും റിപ്പോർട്ടറും ട്വൻറ്റി ഫോറും ന്യൂസ് ചാനലുകളാണ് കാണുന്നത് അതിനവ് അവ് അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എപ്പോഴും അവർ തമ്മിൽ മത്സരം ഒരു മത്സരം പോലെയാണ് നമ്മൾ ഒരു മിനിറ്റ് പോലും സംസാരം നിർത്താതെ പറയിപ്പിക്കുന്ന ഒരു പറഞ്ഞോണ്ടേ ഇരിക്കുന്ന എന്തേലും ന്യൂസോ പ്രത്യേക ദിവസം വന്നാൽ പറഞ്ഞോണ്ടെ ഇരിക്കുന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ വരുത്തുന്ന പത്രം എന്ന് പറയുന്നത് മലയാള മനോരമ തന്നെയാണ് മലയാള മനോരമയിൽ പത്രമാണ് പണ്ട് തൊട്ടെ വരുത്തി കൊണ്ടിരുന്നത് പിന്നെ ഇടയ്ക്ക് ദീപികയും വരുത്തുമായിരുന്നു ഇപ്പോൾ അത് വരുത്താറില്ല ഇപ്പോൾ രണ്ട് പത്രങ്ങളും വരുത്താറില്ല നമുക്ക് ഇപ്പം പത്രങ്ങളുടെ അത്ര ആവശ്യം ഉണ്ടോന്ന് ചോദിച്ചാൽ ഫോണുകളും ടി വിയു ഒക്കെ ഉള്ള ഈ ഒരു യുഗത്തിൽ വായിക്കാൻ അത്ര ഇഷ്ടമുള്ളവരെ പത്രങ്ങൾ ഇപ്പൊഴും വാ ഇപ്പോൾ വരുത്തുന്നുള്ളതായിട്ട് എനിക്ക് തോ ഉണ്ട് എന്നാലും പത്രം ഇല്ലേലും നമുക്ക് സർവൈവ് ചെയ്യാം അല്ലെങ്കിൽ മുന്നോട്ട് പോകാം എന്ന് ഉള്ളൊരു അവസ്ഥയാണ് പിന്നെ പറയുവാണെങ്കിൽ വായിക്കയും പിന്നെ ഞാൻ പറഞ്ഞത് പോലെ തന്നെ വാർത്തകളും കൂടുതൽ ഇത് ഒക്കെ കാണുകയും കേൾക്കുവൊക്കെ ചെയ്യുമെങ്കിൽ എയർപോർട്ട് ഞങ്ങളുടെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ വാർത്തകൾ വാർത്താ ചാനലുകൾ വച്ച് വാർത്തയൊക്കെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് പ്രത്യേകിച്ചും അച്ചച്ഛൻ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ഇങ്ങനെ വാർത്ത കണ്ടോണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ എപ്പം വീട്ടിൽ ചെന്നാലും ഒന്നുങ്കിൽ റിപ്പോർട്ടർ ചാനലോ അല്ലെങ്കിൽ ട്വൻറ്റി ഫോർ ന്യൂസ് ചാനലോ ഇല്ലെങ്കിൽ ഏഷ്യനെറ്റോ മനോരമയോ എതേലും ഒരു ന്യൂസ് ചാനലായിരിക്കും വെച്ചിട്ടുണ്ടായിരിക്കുന്നത് അപ്പോൾ അതിൽ എപ്പോഴും നമുക്ക് റൂമിലൊക്കെ ഇരിക്കുവാ പുറത്തിരിക്കുമ്പോൾ കേട്ടോണ്ടെ നമ്മൾ വരുന്നത് നമുക്ക് അങ്ങന്ന് കേട്ടോണ്ട് വരുമ്പോൾ ശബ്ദം കാണുമ്പോൾ കേൾക്കുമ്പോൾ മനസ്സിലാവും ഇന്ന ആളാണ് ഇന്നെ ന്യൂസ് ചാനലാണ് വെച്ചിരിക്കുന്നത് അവരുടെ ആ ഒരു ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ന്യൂസ് ചാനലേതാണ് എന്നൊക്കെ പറയാനായിട്ട് പറ്റും പക്ഷേ നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചൂടെ ഒരു സമാധാനപരമായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ തന്നെ ഒരു മത്സര ബുദ്ധിയാണ് എപ്പോഴും ഇവർ ഇങ്ങനെ വാതോരാതെ സംസാരിച്ച് ആൾക്കാരെ എങ്ങനെ പിടിച്ചു നിർത്താം എന്നുള്ള ഒരു രീതിയിൽ രീതിയിലേക്ക് കടന്നിരിക്കുവാണ് അപ്പം എന്നാ എന്ത് പറയാ എന്ത് രീതിയിൽ ഒരു ന്യൂസ് തന്നെ ഇങ്ങനെ വീട്ടീന്ന് വഴ വളച്ച് ഒടിച്ച് എന്ത് രീതിയിൽ സംസാരിക്കണം എന്നുള്ള ഒരു ഇതിലേക്ക് ഇപ്പോൾ എത്തി ചേർന്നിരിക്കയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുന്നത് അതിൻ്റെതായ ഒരു ഇഷ്ടക്കേട് സത്യം പറഞ്ഞ എനിക്ക് ഉണ്ട് ഒരു സത്യസന്ധത കുറഞ്ഞ് പോയൊരു രീതിയിൽ ഒരു മാർക്കറ്റിങ് പരമായി പോയി എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പം എങ്കിലും വാർത്തകൾ ഇപ്പോഴും പ്രാധാന്യം ഒന്നും കുറഞ്ഞിട്ടില്ല ഇപ്പോൾ ഞാൻ പറഞ്ഞത് പോലെ തന്നെ ഇപ്പോൾ ചോയി വീട്ടിൽ എപ്പോൾ കയറി ചെന്നാലും ഏതെലും ഒരു വാർത്ത ചാനലായിരിക്കും വീട്ടിൽ വെച്ചിട്ടുണ്ടായിരിക്കുക